മിക്ക യാത്രയും തുടങ്ങുന്നതു മനസ്സിൽ വരുന്ന ഒരു തോന്നലില് നിന്നാണ് പക്ഷെ അപ്പോൾത്തന്നെ പുറപ്പെടാൻ പറ്റൂല ഒരു ദിവസത്തെ യാത്ര ഇല്ലെങ്കില് പ്രത്യേകിച്ച് ഒന്നിലധികം ദിവസം നീണ്ടു നില്ക്കുന്ന യാത്രയാണെങ്കിൽ അല്ലെങ്കില് ദൂരം അഞ്ഞൂറ് കിലോ മീറ്ററോ ആയിരം കിലോ മീറ്ററോ കൂടുതലാണെങ്കിൽ പ്ലാനിങ്ങും വളരെയേറെ അത്യാവശ്യമാണ് എന്നാലും നമ്മള് എത്രയൊക്കെ പ്ലാൻ ചെയ്താലും നമ്മള് പോലും പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങള് വരും എന്നാലും ഒരു ഓവറോൾ പ്ലാനിങ്ങുണ്ടെങ്കില് ആ പ്രശ്നം നമുക്ക് ഈസിയായിട്ട് പരിഹരിക്കാം ആദ്യം തന്നെ എവിടേക്കാണു നമ്മള് ട്രിപ്പ് അവിടത്തെ എല്ലാ കാര്യങ്ങളും നമ്മള് മനസ്സിലാക്കിയിരിക്കണം ഫുഡ് ക്ലൈമറ്റ് താമസം അങ്ങനെ എ റ്റു ഇസെഡ് കാര്യങ്ങള് നമ്മള് മനസ്സിലാക്കിയിരിക്കണം അതുപോലെ തന്നെ ഗൂഗിൾ മാപ്പ് ഗൂഗിൾ മാപ്പില് പോകേണ്ട റൂട്ടും ഡിസ്റ്റൻസും എല്ലാം നോക്കിവയ്ക്കണം നോർമലി ഒരു പന്ത്രണ്ട് മണിക്കൂറുകൊണ്ട് ഓടിയെത്താവുന്ന ദൂരത്തേക്കാൾ കൂടുതലാണെങ്കിൽ ഡെസ്റ്റിനേഷൻ അതു നമ്മള് രണ്ടു ദിവസത്തെ ട്രിപ്പായിട്ട് പ്ലാൻ ചെയ്യണം അതുപോലെ തന്നെ ഫസ്റ്റ് ഡേ ആണെങ്കില് കൂടുതൽ ദൂരവും സെക്കൻഡ് ഡേ ആണെങ്കില് കുറച്ചു ദൂരവുമാക്കി പ്ലാൻ ചെയ്യണം ആ അതുപോലെ നമ്മള് ട്രിപ്പ് പോകുന്ന ഫസ്റ്റ് ഡേ വീട്ടില്നിന്ന് തിരിക്കേണ്ടത് ഒരു രാവിലെ നാലിനും അഞ്ചിനും ഇടയില് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ അന്ന് മുൻപ് വൈകിട്ട് ഏഴിനു മുൻപ് അതായത് ഏഴു മണിക്കു മുന്നെ നമ്മള് ആ ദിവസത്തെ ഡെസ്റ്റിനേഷനിൽ എത്തുന്ന വിധത്തില് വേണം നമ്മള് യാത്ര വീട്ടില്നിന്നു തിരിക്കാനായിട്ട് കഴിയുന്നതും സൺസെറ്റിനു ശേഷം അധികം റൈഡ് ചെയ്യാതിരിക്കുക ഫുൾ ഡേ റൈഡ് ചെയ്തു ഓൾറെഡി നമ്മ ടയേഡായിരിക്കും അതിൻ്റെ കൂടെ രാത്രി കൂടെ ആവുമ്പോൾ ക്ഷീണം ഇരട്ടിക്കും അതുപോലെതന്നെ അതിന്റേതായ പ്രശ്നങ്ങളും നമ്മടെ ബോഡിക്കും റിയാക്ഷൻസ് വരാൻ ചാൻസുണ്ട് അതുപോലെ തന്നെ ഫസ്റ്റ് ഡേ ഒരു പതിനഞ്ച് മണിക്കൂർ അല്ലെങ്കില് മാക്സിമം പതിനാറ് മണിക്കൂര് അതില്ക്കൂടുതല് റൈഡെയ്യാണ്ടിരിക്കുക സെക്കൻഡ് ഡേ ആണെങ്കില് ഒരു പത്ത് മണിക്കൂറുതൊട്ടു പന്ത്രണ്ട് മണിക്കൂർ വരെ പ്ലാൻ ചെയ്യുന്നതായിരിക്കും നല്ലത് അതുപോലെ ഗൂഗിൾ മാപ്പിലിപ്പോള് പത്തു മണിക്കൂര് അതായത് പത്തു മണിക്കൂറാണു കണക്കാക്കുന്നതെങ്കില് അതിൻ്റെ ഒരു ഇരുപത്തിയഞ്ചു ശതമാനം കൂടി കണക്കാക്കുക അതെന്തിനാണെന്നുവച്ചാല് നമ്മള് ഫുഡ് കഴിക്കാനും ഫ്യൂുവൽ അടിക്കാനും യൂറിന് പാസ് ചെയ്യാനും ഒക്കെ ഇടയ്ക്കു നിർത്തുമല്ലോ് പിന്നൊന്ന് നമുക്ക് റെസ്റ്റെടുക്കാനും നമ്മള് കണ്ടിന്യൂസ്ലി ഡ്രൈവെയ്യാൻ പറ്റൂല റെസ്റ്റ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനും വീഡിയോസൊക്കെ എടുക്കാനായിട്ടുള്ള ടൈം കൂടിയാണ് ടൈം കൂട്ടിക്കിട്ടാനാണ് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത് അതായത് മാപ്പിലൊരു പത്തു മണിക്കൂറാണ് കാണിക്കുന്നതെന്നുവച്ചാല് നമ്മളതു പന്ത്രണ്ടു മണിക്കൂറായി ഡിവൈഡ് ചെയ്തു കരുതണം നേരത്തെ തന്നെ റൂമെല്ലാം നമ്മള് ബുക്ക് ചെയ്തിരിക്കണം രാത്രി ഇത്രയും ടൈം വണ്ടി ഓടിച്ച് പിന്നെ റൂം കണ്ടുപിടിക്കുന്നത് ബുദ്ധിമുട്ടാണ് മാത്രമല്ല ഓൺലൈൻ വഴിയാവുമ്പോള് റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് ബുക്കെയ്യാം അതുപോലെ നമ്മള് ഇടയ്ക്കുള്ള രാത്രി സ്റ്റോപ്പില് കഴിയുന്നതും ഹൈ വേ നോക്കി ബുക്ക് ചെയ്യുക പിന്നെ സെക്കൻഡ് ഡേ ആണെങ്കി ഏഴിനും എട്ടിിനും ഇടയില് യാത്ര റീസ്റ്റാട്ട് ചെയ്യുന്ന വിധം പ്ലാൻ ചെയ്യുക ബൈക്കില് ബൈക്ക് ട്രിപ്പിലെ ഏറ്റവും പ്രധാനം ബൈക്കിനുതന്നെയാണ് അപ്പോള് അതിനുള്ള പ്രിപ്പറേഷൻസും എടുത്തിരിക്കണം ഇപ്പോള് ആയിരം കിലോ മീറ്ററില്ക്കൂടുതലുള്ള റൈഡാണെങ്കിൽ ഓയില് ചേഞ്ച് ചെയ്യണം അത് മസ്റ്റാണ് ചെറുതായിട്ടെങ്കിലും ഓയില് കത്തി പോകുന്നുണ്ടെങ്കില് ഓയില് കയ്യില് കരുതണം പിന്നെ എയർ ഫിൽട്ടർ ചെക്ക് ചെയ്യണം ഡസ്റ്റ് കൂടുതലുണ്ടെങ്കില് അതും നമ്മള് ചേഞ്ച് ചെയ്യണം നല്ല പഴക്കമുള്ള വണ്ടിയാണെങ്കില് എച്ച് ഡി വയറും പ്ലഗ് അഡാപ്റ്ററും മാറുന്നതു നന്നായിരിക്കും പിന്നെ ഇത് മാറിയില്ലെങ്കിലാണു നമുക്ക് ഈ മഴയത്ത് വണ്ടി പണി മുടക്കണതും പ്രധാനമായി നമ്മള് പഞ്ചർ കിറ്റ് കയ്യില് കരുതണം അതുപോലെ തന്നെ നമ്മുടെ അത്യാവശ്യം ബേസിക് കാര്യങ്ങള് നമ്മള് അറിഞ്ഞിരിക്കണം വണ്ടീനെപ്പറ്റിയുള്ള ഇപ്പോള് ഒരു ടയര് പഞ്ചറായാലോ അല്ലെങ്കില് പെട്ടെന്ന് ഒരു ബ്രേക്ക് ഡൗണായാലോ പെട്ടെന്ന് നമുക്കടുത്തടുത്ത് വർക്ക് ഷോപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല അപ്പോള് അതിന്റേതായ ബേസിക് കാര്യങ്ങള് നമ്മള് ട്രിപ്പിനുവേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കണം പിന്നെ ഓ കൂടുതല് ഉറക്കം നില്ക്കാൻ പറ്റാത്തൊരാളാണെങ്കില് ഒറ്റയ്ക്കു ട്രിപ്പ് പോകുന്നതിലും നല്ലത് കൂടെ ഒരാളെ വിളിക്കുന്നതായിരിക്കും അപ്പോള് രണ്ടുപേർക്കും ചേഞ്ച് ചെയ്ത് വണ്ടി ഓടിക്കാനും പറ്റും കൂടുതലും നൈറ്റ് റൈഡ് ഒഴിവാക്കുന്നതാണ് എല്ലാ യാത്രയിലും നല്ലത് പ്രത്യേകിച്ച് ബൈക്ക് റൈഡിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോള്